എൻ്റെ പൂന്തോട്ടം നിലനിർത്തി കൊണ്ടുപോവാൻ ഞാനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതായത് കൊതുകളുടെ ശല്യമായാലും മീലിമുട്ട അല്ലെങ്കിൽ പുഴു വെള്ളീച്ച മുഞ്ഞ അങ്ങനെ ഒരുപാട് ക്ഷുദ്രജീവികളിൽ നിന്ന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പം നേരിടുന്നുണ്ട് നമ്മളൊരു ചെടി ഇപ്പോൾ തളിർ തളിർത്ത് വന്നാൽ ആ തളിർ പിറ്റേ ദിവസം പുഴുക്കൾ മുഴുവൻ പുഴുക്കൾ വന്നത് തളിർ വാടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അതേപോലെ മീലിമുട്ട മീലിമുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചെടികളിൽ എല്ലാം കാണപ്പെടുന്ന വെള്ള കളറിൽ വരുന്ന ഒരു ചെറിയ ചെറിയ മുട്ട കണക്കിന് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ മീലിമുട്ട എന്ന് പറയുന്നത് അത് വന്ന് കഴിഞ്ഞാൽ അത് ഒന്നൊന്നായിട്ട് ഇരുന്ന് നമ്മുടെ ചെടി അതേപോലെ അങ്ങ് വാടി പോകും പിന്നെ വെള്ളീച്ച വെള്ള കളറിൽ വന്ന് നമ്മുടെ ചെടിയിൽ അല്ലെങ്കിൽ പൂക്കളെയെല്ലാം ഉപദ്രവിക്കുന്ന ഒരു ഇതാണ് വെള്ളീച്ച എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ് മറ്റൊരു ജീവി കൂടിയാണ് മുഞ്ഞ എന്ന് പറയുന്ന ജീവി പിന്നെ നമ്മുടെ കൊതുക് അങ്ങനെ ഒരുപാട് ജീവികളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ പൂന്തോട്ടം മെയിന്റയിൻ ചെയ്തു കൊണ്ടു പോകുന്നത് അതേപോലെ നമുക്ക് ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ജൈവവളങ്ങൾ ആയിക്കോട്ടെ അത് നമുക്ക് ഒരുപാട് ഒരു അളവിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയാറില്ല കാരണം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ പൂവ് അതിനെല്ലാം നമ്മൾക്ക് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ടു നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതൊന്നും ഉപയോഗിക്കാനും പറ്റുന്നില്ല പിന്നെ ഈ ക്ഷുദ്രജീവികൾ കാരണം നമ്മുടെ പൂന്തോട്ടം ഓരോ ദിവസവും നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നു പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആ അപ്പോൾ ഞാൻ ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ ജീവികളിൽ നിന്ന് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടാണ് എൻ്റെ പൂന്തോട്ടം ഇപ്പോൾ നിലനിർത്തി കൊണ്ടു പോകുന്നത്